മഴയാളത്തിലെ പഴഞ്ചൊല്ലില് ഇഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ ചൊട്ടയിലെ ശീലം ചുടല വരെ നല്ല അർത്ഥവത്തായൊരു പഴഞ്ചൊല്ല് അല്ലെങ്കിൽ പ്രയോഗമെന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാൻ പറ്റും എന്താണെന്നു വെച്ചാൽ നമ്മുടെ ചെറുപ്പത്തില് ശീലിക്കണ അതായത് ഇപ്പോൾ നല്ല ശീലമായാലും പൊട്ട ശീലമായാലും ചെറുപ്പത്തില് നമ്മള് കുറേ ശീലങ്ങൾ ഉണ്ടാവുമല്ലോ അത് നമ്മള് മരിയ്ക്കുവോളം നമ്മുടെ കൂടെയുണ്ടാവുമെന്നാണ് അതിൻ്റെ വ്യാഖ്യാനം വരുന്നത് നമ്മള് മാക്സിമം അപ്പോൾ അതുകൊണ്ടാണ് ചെറുപ്പത്തിലെ എല്ലാവരും നിർബന്ധമായിട്ട് അതായത് ഒരാൾക്കാര് നല്ല ശീലം നല്ല രീതിയില് വളരണം നല്ല കാര്യങ്ങള് ചെയ്യണം അങ്ങനെ ചെറുപ്പത്തില് എങ്ങനെയാണ് ജീവിക്കണ്ടത് അത് അതായത് ഇപ്പോൾ നമ്മുടെ കൃത്യനിഷ്ഠ പിന്നെ നല്ല സ്വഭാവം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മള് ചെറുപ്പം തൊട്ടേ നമ്മുടെ അച്ഛനമ്മമാര് അല്ലെങ്കിൽ ബന്ധുക്കള് നമ്മളെക്കൊണ്ട് ശീലിപ്പിക്കണത് അതുകൊണ്ടാണ് അത് നമ്മള് എന്ത് കാര്യമാണോ നമ്മള് ചെരുപ്പ് ചെറുപ്പത്തില് നമ്മള് ശീലിയ്ക്കുന്നത് ആ ശീലം തന്നെ ആയിരിക്കും നമ്മുടെ അവസാനം വരെ നമ്മടെ മരണം വരെ നമ്മള് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഇതിലുണ്ടാവുക നമുക്കതില് കുറേ മാറ്റം വരുത്താനൊക്കെ ശ്രമിച്ച് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ എന്നാലും നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ എന്താണോ ചെറുപ്പത്തിൽ ചെയ്തത് ആ ശീലം തന്നെയായിരിക്കും മിക്കവാറും നമ്മുടെ കൂടെ ഉണ്ടാവുക